ഇപ്പം മൃഗ പരിപാലനം പരിപാലന രീതികളെക്കുറിച്ചൊക്കെ പറയാണെങ്കിൽ ഒരു ഇപ്പം നമുക്ക് ഇപ്പം പശൂനെയോ കാര്യങ്ങളൊക്കെയോ വാങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിലുളള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക അവയ്ക്കു വേണ്ടത് നല്ല രീതിയിലുള്ള പുല്ല് അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ പുറമെ ഇതിപ്പം ക്യാഷ് കൊടുത്ത് അങ്ങനെ വാങ്ങണ്ട കാര്യങ്ങളൊന്നുവില്ല അപ്പം നല്ല രീതിയിലുള്ള പുല്ല് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക പിന്നെ മെയിനായിട്ട് ഇപ്പം സൊസൈറ്റികളൊക്കെ അതിനു വേണ്ടിയുള്ള പിണ്ണാക്ക് ഓക്കേ അങ്ങനത്തെ പല സാധനങ്ങളും ഇപ്പം സൊസൈറ്റി മുഖാന്തരം തരുന്നുണ്ട് അതൊക്കെ വാങ്ങി നമ്മൾ പശുവിനും കൊടുക്കുവാണങ്കിൽ നല്ല രീതിയിലുള്ള പാലും കാര്യങ്ങളൊക്കെ കിട്ടുംന്ന് അപ്പോൾ നമുക്ക് നല്ല ഇതിപ്പോൾ പാലൊക്കെ കൊടുത്താൽ നല്ല എമൗണ്ട് നമുക്ക് ഇത് കിട്ടും പിന്നെ എങ്ങനെയാന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പം വേറെ മൃഗങ്ങൾന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി അങ്ങനത്തേനെയൊക്കെ വളർത്തുന്നവരും വിൽക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം നല്ല രീതിയിലുള്ള പട്ടി കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടീട്ടൊക്കെ നല്ല രീതിയിലുള്ള അതായത് ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള പട്ടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം സ്വാതന്ത്രമായിട്ടിപ്പം നടത്താൻ പറ്റുന്ന ഒരു കാര്യമെയുള്ളൂ നമ്മളിപ്പം ആരേം പേടിക്കാണ്ടു നടത്താൻ പറ്റുന്ന ഒരു കാര്യമെയുള്ളൂ അത് മൃഗ പരിപാലനം മൃ മൃഗത്തെ വളർത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സ്വന്തമായിട്ട് നടത്തുന്നത്